ഇവിടെ പാട്ടിന് നമുക്ക് ഏറ്റോം പ്രയോജനമുള്ളത് പിന്നേം ഇമ്മടെ നല്ല രീതിയിൽ പാടുന്ന ചിത്ര ചേച്ചീടക്കെ പാട്ടൊക്കെയാണ് ഏറ്റോം നല്ല പ്രയോജനപ്പെടുന്നതാണ് നമുക്ക് മനസ്സിനേറ്റോം വിഷമമുള്ളൊരു പാടുമ്പോഴത്തേക്കാണേലും ചിത്ര ചേച്ചീടെയോക്കെ പാട്ട് കേൾക്കുമ്പോഴ്ത്തേക്കും ഉള്ള നല്ല ഒരു മനസ്സിന് തന്നെ ഒരു കുളിർമ്മയേകുന്ന പാട്ടുകളാണ് കേൾക്കുന്നത് അത് നല്ല അങ്ങനെ നല്ല ഇതായിട്ടുള്ള പാട്ടാണവരുടെയൊക്കെ പാട്ടുകളെന്ന് പറയാൻ ഇപ്പം പലതരം രീതിയിലുണ്ടല്ലോ ഫോണിനകത്താണേലും ടി വിലാണേലും അങ്ങനെ അടിച്ച് പൊളിപ്പാട്ട് ആ രതിയിലും ഒക്കെയും ചെയ്യുന്നത് നല്ല അങ്ങനെ നല്ല ഇതാണ് പാട്ടെന്ന് പറയുമ്പം ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലല്ലോ പാട്ടെന്ന് പറയുന്നത് ഏറ്റോം എവിടെ പോകുന്ന വഴിക്കാണേലും നമ്മൾ ഇപ്പം ഫോണിനകത്തൊക്കെ ആണേലും മറ്റേത് വീട്ടിൽ നം വീട്ടീന്ന് റേഡിയോക്കകത്തങ്ങനൊക്കെ മാത്രമായിരുന്നപ്പം എവിടെയാണേലും ഫോണിനകത്താണേലും ടി വിലാണേലും ഒരു പോകുന്ന വഴിക്കാണേലും പാട്ടും ആസ്വദിച്ച് പോകേം നമുക്ക് നല്ല രീതിയിലുള്ള പാട്ടുകൾ കേൾക്കേം ചെയ്യാം നല്ല അതാണപ്പം പാട്ടെന്ന് പറയുന്നതാർക്കും ഇഷ്ടമില്ലാത്ത കാര്യമല്ലല്ലോ നല്ലൊരുതാണ് പാട്ടെന്ന് പറയുന്നത്